ആ ഹലോ എന്റെ പേര് ജെനീന്നാണേ ഞാനൊരു ബിരിയാണി ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഈ നമ്പറിൽ കൊണ്ടുവരുന്നെന്നു പറഞ്ഞു ഡെലിവറി നിങ്ങളുടെ നമ്പർ തന്ന അവിടെ നിന്നാണ് അപ്പത്തേക്കിനുവേ എ എപ്പം വരും ചേട്ടാ എപ്മ്മ് കൊണ്ടുവരാൻ പറ്റും ഞാൻ നേരത്തെ വിളിച്ചപ്പത്തേക്കിന് എന്തോ അര മണിക്കൂറിനുള്ളിൽ വരുമെന്നാണ് പറഞ്ഞ് ഇപ്പോൾ തന്നെ ഇപ്പെത്ര നേരമായി ഞാന് ഉച്ചക്കത്തേക്കു കഴിക്കാന് വേണ്ടി വിളിച്ചതാണ് അതിപ്പോൾ എത്ര നേരമായി എപ്പോഴാണ് വരണേ ശരിക്കും എവിടെ നിൽക്കുവാണ് നിങ്ങൾ നേരത്തെ വിളിച്ചപ്പോൾ ഉടനെ വരുമെന്നു പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഒരരമണിക്കൂറായില്ലേ ശരിക്കും എവിടെ നിൽക്കുവാണ് ഈ ഈ ഭാഗത്തെവിടെയെങ്കിലുമുണ്ടോ എൻ എന്റെ ലൊക്കേഷൻറ്റടുത്തെവിടെയെങ്കിലുമുണ്ടോ ഉടനെ കൊണ്ടുവരുമോ ചേട്ടാ ഉച്ചക്കു കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അപ്പം എപ്പ് എൻ എപ്പോഴത്തേക്കെത്തുയിത് ഉടനെയെങ്ങാനും കൊണ്ടുവരാനുള്ള വല്ല വകുപ്പുമുണ്ടോ